ഹലോ ആ ഓക്കെ ഓക്കെ ആ ബിനു ഏട്ടന് ബിനു എട്ടന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ നമ്മള് ആ ആ നമ്മള് വീട്ടില്ത്തന്നെയാണ് വീട്ടില്ത്തന്നെയാണ് വീട്ടില്ത്തന്നെയുണ്ട് അ ഓക്കെ ഓക്കെ ഓക്കെ ചേട്ടാ അതു നമ്മള്ക്കേ ചേട്ടനെടുക്കുമല്ലോ നമ്മള്ക്കീ വേറെ ബ്രാൻഡ് എടുത്തുകഴിഞ്ഞാൽ ആ അല്ലല്ലാ വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആ വാർപ്പ് വാർപ്പ് മേലെ വാർപ്പാണ് ഇല്ല ഇല്ല കളര് നമ്മള്ക്കുവന്നു സെലക്റ്റെയ്താപ്പോരെ വൈറ്റുണ്ട് വൈറ്റാണ് നല്ലതെന്നു തോന്നുന്നു വൈറ്റല്ലേ നല്ലത് കുറച്ചുംകൂടെ ആ സീലിങ്ങിന്ന് പെയ്ൻറ്റ് കൊടുക്കാം സീലിങ്ങ് ചെയ്യുന്നില്ല പെയ്ൻറ്റ് കൊടുക്കാമെന്നുവച്ചിട്ടാണ് പിന്നെ നല്ല ഡിസൈനിലൊക്കെ ആ പുട്ടിയിട്ട് പുട്ടിയിട്ട് ചെയ്യാമെന്നുവച്ചിട്ടല്ലേ അപ്പോഴതല്ലേ കുറച്ചൂകുടെ നല്ലത് ആ ഫുള് റൂമിന് ആർട്ട് വർക്ക് വേണമെന്തായാലും അത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമല്ലോ ഒന്നു നോക്കിയിട്ട് അത് ഇവിടെ വന്നിട്ടു കാണിച്ചാല് മതി ചേട്ടൻ വരുമെന്നല്ലേ പറഞ്ഞത് വന്നുകഴിയുമ്പോള് കാണിക്കാമെങ്കില് നല്ലതായിരുന്നു ഇത് മാനന്തവാടിയില്ത്തന്നെയാണ് മാനന്തവാടി ടൗണില്ത്തന്നെയാണ് കുറച്ച് ടൗണില്നിന്നൊരു ഒരു കിലോമീറ്ററേ ഉള്ളു ആ മറ്റേ ആ ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാമല്ലേ അപ്പോള് ആ ഓക്കെ